സംരംഭകരെ സഹായിക്കുന്ന പല ടി വി പരിപാടികളും ഇപ്പം ഉണ്ടല്ലോ പ്രത്യേകിച്ച് ട്വൻറ്റി ഫോർ ആ ട്വൻറ്റി ഫോറിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അവർ ചെയ്യാറുണ്ട് ചെയ്ത് അതൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾക്കു വേണ്ടിയിട്ട് കൃഷിയുടെ കാര്യങ്ങൾ കാണിക്കാറുണ്ട് അതേ പോലെ ഡി ഡി മലയാളത്തിൽ കൃഷി ദർശൻ എന്നും പറഞ്ഞൊരു പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് തീർച്ചയായും ഇതിൽ താത്പര്യമുള്ളവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ബിസിനസ്സ് മാറ്റേഴ്സ് എന്നും പറഞ്ഞ് ഒരൂ ടോക്ക് ഷോ നടത്താറുണ്ട് അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൽ താത്പര്യം ഉള്ളവർക്ക് അതിലോട്ട് ഇൻട്രസ്റ്ററ്റായിട്ട് നോക്കി ചെയ്യാൻ പറ്റും അവർ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറുകൾ അതെല്ലാം നം കൊടുക്കാറുണ്ട്